ആ ആ അതെ അതെ ആ സാർ സാർ പറഞ്ഞോ സാർ ആ

ഉവ്വ് ഉവ്വ് ഉവ്വ് സർ

ഉവ്വ് ഉവ്വ് സർ ആ സാർ ഞാന് ഞാന് ഞാനെൻ്റെ ആ ഡ്യൂട്ടി ചെയ്തെന്നേ ഉള്ളൂ സാറേ പരിമിതമായ സാഹചര്യങ്ങളില് എന്നാൽ ആവുന്ന ഒരു കാര്യം ചെയ്തു എന്നു മാത്രമേ ഉള്ളൂ ഞാന് എൻ്റെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഞാനങ്ങു ചെയ്തെന്നേ ഉള്ളൂ എൻ്റെ ഒരു ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതു ശരിയാണ് ഒരു ടാർഗറ്റ് അറ്റൈൻ ചെയ്യാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാന് കുറച്ചു പിന്നെ ദിവസങ്ങളായിട്ട് ഞാനതിനുവേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു ശാരീരികമായ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നിട്ടു പോലും ഞാന് പലപ്പോഴും അതൊന്നും ഗൗനിക്കാതെ കസ്റ്റമേഴ്സിനെ കാണാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടിനടക്കുകയായിരുന്നു ഞാനെൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്തതാണ്

ഉവ്വ് ഉവ്വ്

ഉവ്വ് ഉവ്വ്

അത് ഞാന് പരമാവധി ശ്രമിക്കാം സാർ എനിക്ക് ഞാന് ഈ ഈ ഒരു ഈ ഒരു രീതിയില് അത് ഈ രീതിയില് തുടരാമെന്നാണ് ഇത് ആ രീതിയിൽത്തന്നെ ഇപ്പോൾ ചെയ്ത ആ ഒരു വർക്ക് അതേപോലെ തന്നെ തുടരാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞാന് എൻ്റെ പരമാവധി ഞാന് എൻ്റെ എനിക്ക് എനിക്കു സാധിക്കുന്ന രീതിയിൽ ഞാനതു ശ്രമിക്കാം ഈ നമുക്കെന്തെങ്കിലുമൊരു അഡീഷണലായിട്ട് റെമ്യൂണറേഷനൊക്കെ ഉണ്ടാവുമോ സാർ

ഉവ്വ് ഉവ്വ് ഇനി ഈ എംപ്ലോയീസ് ഈ എംപ്ലോയീസ് കൂടുതലായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഈ പ്രത്യേകിച്ച് ഈ ആണ് എംപ്ലോയീസ് പിന്നെ കൂടുതലായിട്ടുള്ള ഏരിയ അതുപോലെ തോട്ടം തൊഴിലാളികള് എസ്റ്റേറ്റ് തൊഴിലാളികളൊക്കെ ഉള്ള ഏരിയാകള് അപ്പോള് അവിടെ ഇപ്പോഴീ മൂന്നാർ ദേവികുളം ഏരിയ ആണെങ്കില് അതു വളരെ കുറച്ചുകൂടി ആള് ആളുകളെ പിന്നെ എസ്റ്റേറ്റ് എന്നാ തൊഴിലാളികൾ ആകുമ്പോൾ അവരിൽ നിന്നൊക്കെ നിന്നൊരു ഇങ്ങനെ റെമൂനറേഷൻ അല്ല ഈ പിന്നെ പ്രീമിയം കളക്ടീയ്യാനും ഒക്കെ സാധിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ കാരണം അതുപോലെ എംപ്ലോയീസൂണ്ട് എംപ്ലോയീസൂണ്ടെ അ ആ ഉവ്വ് ഉവ്വ് ഉവ്വ് ഉവ്വ് ഉവ്വ് ആയിക്കോട്ടെ ഓക്കെ സാർ താങ്ക്യൂ താങ്ക്യൂ വെരി മച്ച് താങ്ക്യൂ വെരി മച്ച് ഓക്കേ ഓക്കേ താങ്ക്യൂ